നമ്മുടെ ഈ പ്രദേശത്ത് കുറേപേര് ഭൂമി കിട്ടാതെ ജീവിക്കുന്നു കുറേ ഭൂമിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളിൽ കുറേപേരെ ബാധിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അതിന് പ്രശ്നമുണ്ട് അതുപോലെ ഭൂമിയൊന്നുമില്ലാത്തവര് ഇപ്പോൾ ഇപ്പോഴും കാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് അവർക്കെപ്പോൾ വേണമെങ്കിലും കാട്ടിൽ നിന്ന് ഒഴിയേണ്ടിവരും കാരണം അത് സർക്കാരിൻ്റെ വകയാണ് സർക്കാർ എപ്പോൾ പറയുന്നുവോ അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒഴിയേണ്ടി വരും കാരണം അതവരുടെ അല്ല അത് സർക്കാരിൻ്റെയാണ് അതും കാടുമാണ് എന്നിട്ടും അവർ അവർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും അവർ അവിടെ താമസിക്കുന്നത് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടവിടെ ഇതിനൊക്കെ കുറേ പരിഹാരങ്ങളും കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങൾ ഒക്കെ നേരിടണം ഭൂമിയുടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഉൾനാടുകൾ ഭൂമിയൊക്കെ സ്വന്തമാക്കാൻ കുറേ കഷ്ടപ്പാടാണ് കർഷകർക്കും ഇതേപോലെ കുറേ കഷ്ടപ്പാടുണ്ട് ഇതൊക്കെ മരം മുറിക്കണമെങ്കിലുമൊക്കെ കുറേ പ്രശ്നങ്ങളാണ് ഈ ഉൾപ്രദേശത്തൊക്കെ ഇതിനൊക്കെ തരണം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നേരിടണമെന്നാണ് തോന്നുന്നത് അതേപോലെ ഭൂമിയൊന്നും ഇല്ലാത്ത കുറേപേരുണ്ട് അവർക്കും ഇത് ഉപകാരപ്പെടണം